ഹലോ ആ ബെൻസീ മേഡമാണോ ആ ഇത് സ്റ്റഡീസ് ടൂർസാൻഡ് ട്രാവൽസീന്നാണേ നമ്മള് ഒരു പാക്കേജിൻ്റെ കാര്യം നമ്മള് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോള് നിങ്ങള്ക്ക് എന്നത്തേക്ക് നിങ്ങളുടെ കൺവിൻസ്ഡായിട്ടൊരു ഡേയ്റ്റെന്നാ അപ്പോള് എവിടേക്കാണ് മൂന്നാറൊക്കെയാണോ നോക്കുന്നെ മൂന്നാര് ആണല്ലേ അപ്പോള് ഏത് കാറ്റഗറിയിലുള്ള ഹോട്ടൽസാണു നിങ്ങള് നോക്കുന്നത് ഹാ ഹാ ഓ ശരി റിസോർട്ട് ടൈപ്പാണോ അതോ റിസോർട്ട് ടൈപ്പാണോ അതോ ഹോട്ടൽ ഹോട്ടലായിട്ടാണോ നോക്കുന്നത് റിസോർട്ടായി കൂടുതലാകുമ്പോള് റിസോർട്ട് ടൈപ്പാണെങ്കിൽ നമുക്കിച്ചിരി റേയ്റ്റ് കൂടും സിക്സ് തൗസൻഡ് പ്ലസ് എബൊവായിരിക്കും പെർ റൂം അല്ലെങ്കിലൊരു ത്രീ തൗസൻഡൊക്കെയാകുവുള്ളു നമ്മുടെ ശരി ശരി എത്ര എത്ര ദിവസത്തേക്കാണു നിങ്ങള്ക്കു വേണ്ടത് അപ്പോള് നിങ്ങള്ക്ക് എന്താ പറയുക ആ പായ്ക്കേജില് ആക്ടിവിറ്റീസെന്തങ്കിലും നമ്മളറേഞ്ച്യ്യണോ ആ ആ ആ അല്ല നമുക്ക് ഇപ്പോള് പാക്കേജൊക്കെ ആണങ്കില് നമ്മള് കഥകളി അതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മൾ പ്രൊവൈഡ്യ്യുന്നുണ്ടേ അതിനെക്സ്ട്ര അതിനെക്സ്ട്ര അതിനെക്സ്ട്രാ ചാർജാവും ആ അല്ലെങ്കില് നമ്മള് ടൂറിസം വകുപ്പിൻ്റെ ഇത് തേക്കടിയില് നമ്മള് വനത്തിലോട്ട് ട്രക്കിങ്ങൊക്കെയുണ്ട് അപ്പോള് നമുക്ക് അനിമൽസിനെയൊക്കെ കാണാൻ പറ്റും അതിനു നമ്മള് ചാർജാണ് പ്രത്യേക ചാർജാണ് അപ്പോള് നമുക്ക് പെർ പേഴ്സന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡൊക്കെയാവും അപ്പോള് ഒരാൾക്ക് ഒരാൾക്ക് അപ്പോള് അപ്പോള് നമ്മള് കൂട്ടത്തില് നമുക്ക് സെക്യൂരിറ്റിയുണ്ടാവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമുണ്ടേ ആഹാ പേടിയുണ്ടെങ്കില് ഇത് അഡ്വഞ്ചർ പ്രോഗ്രാമാണേ അഡ്വഞ്ചർ പ്രോഗ്രാമാണ് ആ ഹാ ഹാ

ആ ശരി ശരി ആ മൂന്ന് മൂന്നര മിനിറ്റല്ലേ പറഞ്ഞിരുന്നത് മിക്കവാറും എന്താണെന്നറിയത്തില്ല മൂന്നര മിനിറ്റ്

അപ്പോള് രണ്ടാം തീയതിലേക്കു നമുക്ക് ബുക്ക്യ്യാം അല്ലേ എന്നത്തേക്കാ രണ്ടാം തീയതിയാ ആ ശരി ഓക്കേ